ഇൻഡ്യയില് ഏറ്റവും കൂടുതല് സന്ദർശകരെത്തുന്ന നോർത്ത് ഇൻഡ്യയില് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഒരു എന്താ പറയുന്നത് പ്രധാനപ്പെട്ട മത കേന്ദ്രമാണ് വൈഷ്ണമാത ടെമ്പിൾ എന്നു പറയുന്നത് എൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ഞാനവിടെ കുറേ വർഷങ്ങള് ചിലവഴിച്ചപ്പോള് വൈഷ്ണ മാതയിൽ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പഹൽഗാവില് വഴി നമ്മള് ഒരു യാത്ര പോയിട്ടുണ്ട് അവിടെ ഒരു എന്നാ പറയുന്നെ എല്ലാ വർഷവും രൂപപ്പെടുന്ന ഒരു ശിവലംഗത്തിൻ്റെ ദൃശ്യമുണ്ട് പഹൽഗാം വഴി നമ്മളങ്ങനെ കയറിച്ചെന്നുകഴിയുമ്പോള് ജമ്മിവിലെയും കാശ്മീരിലെയുമൊക്കെ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലും നിറയെ ആളുകള് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് വൈഷ്ണമാതയും അതുപോലെ തന്നെ ഈ പഹൽഗാവും പിന്നീടിങ്ങോട്ട് വന്നാലിപ്പോള് കേരളത്തിലേക്കു വരുകയാണെങ്കില് കേരളത്തില് ഏറ്റവും കൂടുതൽ ആളുകള് സന്ദർശിക്കുന്ന ഒരു ഹിന്ദുമത വിശ്വാസ കേന്ദ്രമാണ് ശബരിമല എന്നു പറയുന്നത് ലക്ഷക്കണക്കിനാളുകളാണ് ഓരോ വർഷവും ഒരു സീസണില് വ്രതമെടുത്ത് അവിടെ സന്ദർശനം നടത്തുന്നത് അതുപോലെ നമ്മള് ഇപ്പോള് മറ്റു മത വിഭാഗങ്ങളുടെ ഇതിലേക്കു വന്നാല് നമ്മള് മലയാറ്റൂര് മലയാറ്റൂര് ഒരു ക്രിസ്ത്യൻ മത കേന്ദ്രങ്ങള് ആളുകളിങ്ങനെ സന്ദർശിക്കുന്ന മലയാറ്റൂര് തോമാശ്ലീഹായുടെ കുരിശടിയും കുരിശുമലയും സന്ദർശിക്കയും കാണുകയും ചെയ്യുന്ന സ്ഥലമാണ് അതങ്ങനെ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് കേരളത്തില് ഇപ്പോള് ഈ പറഞ്ഞപോലെ തന്നെ ശിവഗിരി തീർഥാടന കേന്ദ്രമാണ് മതവുമായിട്ടു ബന്ധപ്പെട്ട തീർഥാടന കേന്ദ്രമാണ് ശബരിമലയുണ്ട് ശിവഗിരിയുണ്ട് മലയാറ്റൂരുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽനിന്ന് ആളുകള് ഏറ്റവും കൂടുതൽ ആളുകള് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് വേളാങ്കണ്ണി വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി എന്നെപ്പോലുള്ള ആളുകള് ഞങ്ങളിവിടെ എല്ലാ വർഷവും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള മിക്കവാറുമുള്ള പള്ളികളിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന പോലെ ഇവിടെനിന്നുള്ള വിശ്വാസികൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരു മത കേന്ദ്രമാണ് അല്ലെങ്കില് മത കേന്ദ്രത്തിൻ്റെ ഭാഗമാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി അതുപോലെയങ്ങനെ ഒരുപാട് കേന്ദ്രങ്ങള് നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് ഇപ്പോള് കേരളത്തില് ശബരിമലയും ശിവഗിരിയും വേളാങ്കണ്ണിയും സോറി വേളാങ്കണ്ണിയല്ല മലയാറ്റൂരും തമിഴ്നാട്ടിലേക്കു ചെന്നാല് എന്താ പറയുന്നെ വേളാങ്കണ്ണിയും ഇൻഡ്യയുടെ ചരിത്രത്തിലേക്കു കടക്കുകയാണെങ്കില് വൈഷ്ണോമാതയും ഉൾപ്പെടെയുള്ള ഒരുപാട് കേന്ദ്രങ്ങള് ജീവിതത്തില് സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വലിയ ഇതാണ് വലിയ അനുഭവമാണ് കാരണം നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് അവിടെയൊക്കെ പോകാനും നമ്മുടെ വിശ്വാസം അത് ഏറ്റുപറയാനുമൊക്കെ നമുക്കു സാധിച്ചിട്ടുണ്ട് അപ്പോള് ഒരു ഈ പറയുന്ന കേന്ദ്രങ്ങളിലെല്ലാം ആളുകള് ഇങ്ങനെ വളരെ കാര്യമായിട്ട് വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി പോകുന്ന മത കേന്ദ്രങ്ങളാണ് ഇതെല്ലാം അവിടെയൊക്കെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ചില നിയോഗങ്ങള് സാക്ഷാത്കരിക്കുന്നതിനുവേണ്ടി അവരുടെ ആഗ്രഹങ്ങള് അവരുടെ പ്രതീക്ഷകൾ അവരുടെ സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കുന്നതിനുവേണ്ടി നേർച്ചയൊക്കെ നേർന്ന് വ്രതമൊക്കെ എടുത്ത് സന്ദർശിച്ച് അവിടുന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന കേന്ദ്രങ്ങളാണ് അപ്പോള് ഇതു കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കേന്ദ്രങ്ങള് നമ്മുടെ രാജ്യത്താകമാനമുണ്ട് പക്ഷെ ഞാനെൻ്റെ ഓർമ്മയിലേക്കു വന്ന പെട്ടെന്നു വന്ന വലിയ തോതിൽ ആളുകള് സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുപോയെന്നേ ഉള്ളു ഏതായാലും നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകള് സന്ദർശിക്കുന്ന മത കേന്ദ്രങ്ങൾ അതായത് മനുഷ്യൻ്റെ വിശ്വാസവുമായിട്ടു ബന്ധപ്പെട്ട് അല്ലേ മതങ്ങൾടെ അവര് പരിപോഷിപ്പിച്ചു വച്ചിരിക്കുന്ന അത്തരം സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകള് വലിയ തോതില് ഒഴുകിയെത്താറുണ്ട് ശബരിമലയിലൊക്കെ ഒരു സീസണിൽ ആളുകളെ നിയന്ത്രിക്കുക എന്നു പറയുന്നതു പോലും വലിയ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോള് വെർച്വൽ ക്യൂ വഴി ആളുകളെ കയറ്റിവിടുന്ന അല്ലെങ്കില് പിന്നെ മാനുവലായിട്ട് റജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുക്കി ഏതായാലും ഫലപ്രദമായിട്ട് യാതൊരു പ്രതിസന്ധിയും കൂടാതെ ആളുകളവിടെ എല്ലാം പോവുകയും കാണുകയും വരികയുമൊക്കെ ചെയ്തു വളരെ നന്നായിരുന്നു എന്നാണു പറയുന്നത് അപ്പോള് പലയിടത്തും പല കേന്ദ്രങ്ങളിലും ആളുകളെ സന്ദർശനങ്ങള് അപ്പോള് വെളാങ്കണ്ണിക്കൊക്കെ ആണെങ്കിലും ഞങ്ങളിവിടുന്ന് പോവുമ്പോള് നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥയൊക്കെ ആയിരിക്കും ഭയങ്കര ചൂടായിരിക്കും അവിടെ ചെല്ലുമ്പോള് പക്ഷെ അവടെ ചെന്നുകഴിയുമ്പോള് ആളുകള് അവൻ്റെ ആ വിശ്വാസത്തിലേക്കു ലയിച്ചു കഴിയുമ്പോള് ഇതെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ ഈ ചൂടൊന്നും വകവയ്ക്കാതെ അവിടെ പോയി ദിവ്യ ബലിയിലൊക്കെ പങ്കെടുത്തിട്ടു തിരിച്ചു പോരും അതുപോലെ തന്നെയാണ് മലയാറ്റൂരില് പോകുന്നത് മലയാറ്റൂര് പോകുമ്പോള് മലയുടെ കയറ്റമെന്നു പറയുന്നത് ഇടുക്കിയില്നിന്നൊക്കെ പോവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരിക്കില്ല കാരണം അവര് സ്ഥിരമായിട്ടവര് നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടു മലയൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളിടത്തുനിന്നു വരുന്നവരൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പുതിയ പിള്ളേരൊക്ക വരുന്നവര് ഇവര് പുറത്തിറങ്ങാതിരിക്കുന്ന പിള്ളാരാണ് കാടും മലയൊക്കെ കയറുക കുന്നു കയറുക എന്നൊക്കെ പറയുന്നതിവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഇവരൊക്കെ വളരെ വിശ്വാസത്തിലും ഭക്തിയിലും ഈ മലയൊക്കെ കയറുകയും പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോള് എല്ലാം കൊണ്ടും ഇതെല്ലാം ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാർഥനാപൂർവം വിശ്വാസപൂർവം വ്രതമൊക്കെ എടുത്തു സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണ് വളരെ എന്നാ പറയുന്നെ ഒരു ഒരിക്കലും ഇപ്പോഴത്തേതെന്നാന്നുവച്ചാല് ഇത് മത കേന്ദ്രങ്ങൾ എന്നു പറയുന്നതിനെക്കാട്ടിലും കൂടുതല് വിശ്വാസ കേന്ദ്രങ്ങളാണ് ഇതെല്ലാം കാരണം ആളുകൾക്കവരുടെ നിയോഗങ്ങള് സാധിക്കാൻ അവരുടെ പ്രാർഥനകള് സാധിച്ചെടുക്കാൻ അവരുടെ ആഗ്രഹങ്ങള് സഫലീകരിച്ചെടുക്കാൻ അവര് നേരുന്ന നേർച്ചുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വിശ്വാസ മത കേന്ദ്രങ്ങളിലേക്കു പോകുന്നത് അവിടെ എല്ലാം അവർക്ക് അതിന്റേതായ ഫലപ്രാപ്തി ഉണ്ടാവുന്നുണ്ടാവണം ഇല്ലെങ്കിൽ ഒരിക്കല് പോകുന്നവൻ പിന്നെ പോകാനുള്ള സാധ്യതകള് കുറവാണ് അതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മത കേന്ദ്രങ്ങളായിട്ട് എനിക്കു തോന്നിയിട്ടുള്ളത്